എൻ്റെ കുട്ടിക്കാലം എന്നു പറയാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല അതുപോലെ വളരെ സന്തോഷകരമായും അതുപോലെ വർണ്ണന നിറഞ്ഞതും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എൻ്റെ കുട്ടിക്കാലം അത് ഇപ്പോൾ എല്ലാം ഓർമ്മകളായി മാത്രം അവസാനിക്കുന്നതിൽ വളരെ സങ്കടം ഉണ്ട് ഈ ഇപ്പോൾ ഈ സമയം വെച്ചു നോക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിയാം എന്നാലും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കുട്ടിക്കാലം കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലം എൻ്റെ ചേട്ടന്മാരും അനിയത്തിമാരും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഒരുമിച്ച് കളിച്ചതും കഞ്ഞിയും കറിയും വെച്ചതും അക്കുത്തിക്കുത്താന വരമ്പ് കളിച്ചും ഒക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ വളരെ സങ്കടം ഉണ്ട് അതിലുപരി വളരെ സന്തോഷവുമാണ് എന്താണെന്നു ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത്ന്ന് വെച്ചു നോക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും വ്യത്യസ്തകരമായും അത്രയും സന്തോഷം നിറഞ്ഞതുമായ ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ ചേട്ടന്മാരൊക്കെയെന്നെ മരത്തിൽ കയറ്റിയതും അവരെ എന്നെ ഓടി കളിക്കുന്നതും സാറ്റ് കളിക്കുന്നതും അതൊക്കെ എന്ത് രസമായിരുന്നു എന്ന് ഈ പറഞ്ഞ വാക്കുകളിൽക്കൂടി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും അത്രയും നല്ല ഒരു സന്തോഷകരമായ ദിവസങ്ങളിലായിരുന്നു ഈ ആ ദിവസം എൻ്റെ കുട്ടിക്കാലം ഒന്നൂകൂടി തിരിച്ചുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വരില്ലയെന്ന് അറിയാം ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഒരുപാട് ടെൻഷനും കാര്യങ്ങളിലും എൻ്റെ മനസ്സിൽക്കൂടി കടന്നുപോകുന്നുണ്ട് അത് അത് വെച്ചു നോക്കുമ്പോൾ അതേ സമയം കുട്ടികളെ വെച്ചു നോക്കുമ്പോൾ അവരുടെ കുട്ടിക്കാലം എന്നു പറയുന്നത് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓരോ മോമെൻസും കാര്യങ്ങളൊക്കെയാണ് അത്രയും നല്ലൊരു ടൈം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവത്തില്ല അതുപോലെതന്നെ പഠിക്കുമ്പോൾ എന്താ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കുഞ്ഞു കുഞ്ഞു നെല്ലിക്കയെടുത്ത് കഴിക്കുമ്പോഴും കൂട്ടുകാരുമൊത്ത് കളിക്കുന്നു ഓടി കളിക്കുന്നും അവരോടൊത്ത് കളിക്കുമ്പോൾ കൂട്ടുകെട്ടി കളിക്കുന്നതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ അത്രയും മനോഹരമായ ദിവസങ്ങൾ വേറെയൊന്നില്ല എന്ന് ചിന്തിക്കുകയാണ് നമുക്ക് ഇപ്പോൾ എത്ര നല്ല ജോലി കിട്ടിയാലും എത്ര നല്ല സന്തോഷകരമായ വലുതായിട്ട് എത്ര നല്ല സന്തോഷകരമായ ഓരോ കാര്യങ്ങൾ കിട്ടിയാലും നമ്മുടെ കുട്ടിക്കാലത്തെ വെച്ചു നോക്കുമ്പോൾ അത്രയും നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മൊമെൻസ് നമുക്ക് ഇനി കിട്ടാനും കിട്ടിയെന്നു വരില്ല ഇനിയിപ്പോൾ എത്ര പ്രായമായാലും ഒരിക്കലും നമുക്ക് ആ മൊമെൻസ് കിട്ടില്ല ഓ എല്ലാം ഓർമ്മകളായി മറയുകയാണ്